നമുക്ക് ആ ഒരു എട്ട് ലക്ഷം രൂപേടെ താഴെ വരുന്ന കാർ ഏതാ ഉള്ളത്

ആ ആ ഓക്കെ ബ്രോ അതിൻ്റെ ഇത് ഒന്ന് പറയോ മോഡല് ഇത് ഒക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ അലോവീല് ഇത് ആക്കി തരില്ല ഇത് ഇപ്പോൾ എത്രയാണ് മോഡലൊക്കെ ഇതിൽ ഇതിൻ്റെ മോഡല് വണ്ടീടെ സ്വിഫ്റ്റിലെ സെക്കൻഡ് ആവും അല്ലേ അത് എത്രയാ ബഡ്ജറ്റ് വരുന്നത് ആ ഓക്കെ ബ്രോ ഞങ്ങൾ വയനാട് ആയിരുന്നു ആ ഓക്കെ കോഴിക്കോട് ആയിരുന്നു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാ ആ എൻ്റെ ഈ നമ്പറിൽ ആ എല്ലാം ഉള്ളത്

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞങ്ങള് എട്ട് ലക്ഷമാണ് പറഞ്ഞത് ആ ഓക്കെ ബ്രോ ഓ പ്രശ്നം ഒന്നും ഇല്ല ബ്രോ നിങ്ങളെ ഷോറൂം എവിടെ ആയിരുന്നു ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ